പുറത്തുപോയി പഠിക്കുന്നവരാകട്ടെ അവർ അവർതെ അവിടുത്തെ അവസ്ഥകൊണ്ടും ഹോസ്റ്റൽ ലൈഫ് കൊണ്ടും പിന്നെ പോ നാടിനെ വിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ പഠിത്തത്തിലാകട്ടെ അവർ മുന്നേറു മുന്നേറുന്നുണ്ട് മുന്നേറുന്നുണ്ട് അവരുടെ അവസ്ഥകൊണ്ട് തന്നെ അവർക്ക് പഠിക്കണമെന്നുള്ള ബോധം വരുന്നത് കൊണ്ട് തന്നെ അവർ മുന്നേറുന്നുണ്ട് പിന്നെ നാട്ടിലുള്ളവരാകട്ടെ അവരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിച്ചവരാകട്ടെ ഓർക്ക് കുറച്ചും കൂടി ഒരു നേട്ടമുണ്ട് എന്നാൽ പുറം മറ്റ് മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചവരാകട്ടെ അവർ കുറച്ച് പുറകോട്ട് പോയോന്നൊരു സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ ടാസ്ക്കും കാര്യങ്ങളൊക്കെ വലുതായി വലുതായി വരുന്നതു കൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്നും തോന്നുന്നുണ്ട് മുന്നേറുന്നുണ്ടോയെന്ന് വെച്ചാൽ എല്ലാവരും മുന്നേറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്